ആ ഹലോ ഡോക്ടർ ഞാൻ അർച്ചനയാണ് ആ എനിക്ക് ഇന്നലെ രാത്രി ഭയങ്കര വയറുവേദന ഉണ്ടായിരുന്നു ആ അപ്പോൾ ഭയങ്കരം ആയിട്ട് ഉണ്ട് അപ്പോൾ എന്താ ചെയ്യണ്ടെയെന്ന് അറിയാൻ വേണ്ടി ഞാൻ ഇന്നലെ ഇന്നലെ റെസ്റ്റോറൻ്റിൽ നിന്ന് ഒരു ഷവർമ ഓർഡർ ആക്കിയിട്ട് ഉണ്ടായിരുന്നു ആ അപ്പോൾ അതിൻ്റെ ആണോയെന്ന് അറിയില്ല ആ ഞാൻ ഛർദിച്ച് ഞാൻ വീട്ടിൽ കഴിച്ച വേറെ ആർക്കും പ്രശ്നമില്ല എനിക്ക് മാത്രമേ പ്രശ്നം ഉള്ളൂ ആ ഒരിക്കൽ ഛർദിച്ച് കഴിഞ്ഞ് പിന്നെ പ്രശ്നം ഉണ്ടായിട്ടില്ല കുറച്ച് വെള്ളം കുടിച്ച് ഇരുന്നു പക്ഷെ ആദ്യയും ഛർദിച്ചു പിന്നെയും ഛർദിച്ചു

ഇല്ല ഇല്ല ഇല്ല ഡോക്ടർ ഓ പത്ത് മണിക്ക് എനിക്ക് എനിക്ക് വേറെ പരിപാടി ഉണ്ട് ഡോക്ടറ് അപ്പോൾ വയറുവേദനേൻ്റെ ഗുളിക ഇല്ല വേണമെങ്കിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങാം ആ വയറുവേദനയും ഛർദിയും ഉണ്ട് പിന്നെ ചെറിയ ഒരു തലവേദന ഉണ്ട്

ടോക്കൺ എടുക്കണോ ഡോക്ടറെ വരുമ്പം ആ എത്ര മണിക്കാണ് വിളിക്കേണ്ടത് ടോക്കൺ എടുക്കാൻ വേണ്ടി ആ ശരി ഡോക്ടർ എന്നാൽ വേറെ എന്തെങ്കിലും ഇപ്പോൾ കഴിക്കാമോ പിന്നെ ആ ആ ഞാൻ മാറുന്നില്ലെങ്കിൽ ഞാൻ ടോക്കൺ എടുത്തിട്ട് ആ ശരി ഡോക്ടർ ശരി